ഹലോ ഗുഡ് മോര്ണിംഗ് ആ ഗുഡ് മോര്ണിംഗ് പറഞ്ഞോളൂ ആരാണ് വിളിക്കുന്നത് ഓക്കെ ഓക്കെ പറഞ്ഞോളൂ

അത് ഇപ്പോൾ എന്നാണെന്ന് അറിയുമോ സ്കൂളിൽ പരീക്ഷയാണ് എക്സാം ഒക്കെ നടക്കുന്ന സമയമല്ലേ നമ്മൾ എങ്ങനെ പിള്ളേര്ക്ക് അവധി കൊടുക്കും മിസ്സ് സ്കൂളിൾ നിന്ന് ഒക്കെ നമുക്കധികം ടൂറ് ഒക്കെ ഉണ്ടല്ലോ ഇത് സ്കൂളടയ്ക്കുന്ന സമയത്തൊക്കെ ടൂറ് ഒക്കെ ഉണ്ടല്ലോ ടൂറ് പ്രോഗ്രാം ആ സമയത്ത് പോയാൽ പോരെ ഇപ്പോൾ നമ്മൾ ഈ ഇടവേളയിൽ ഈ പരീക്ഷയൊക്കെ നടക്കുന്ന സമയത്ത് നിങ്ങൾ ടൂറ് പോകുന്നത് ശരിയായ നടപടിയല്ലല്ലോ എങ്ങനെ പിള്ളേര്ക്ക് നമ്മൾ അവധി കൊടുക്കും

അപ്പോൾ ഞാന് ചോദിക്കുന്നത് എന്നാ ഞങ്ങൾ എക്സാം മാറ്റിവെക്കണോ നിങ്ങളുടെ ടൂറ് കൊണ്ട് ടൂറിനുവേണ്ടി ഞങ്ങൾ എക്സാമ്

അത് എക്സാം ഞാന് ടീച്ചര്മാരോട് ഒക്കെ ഒന്ന് അന്വേഷിച്ചു നോക്കട്ടെ അവര് എന്താണ് പറയുന്നതെന്ന് അവരോടു ചോദിച്ചാൽ നമ്മൾ ഇപ്പം അഭിപ്രായം പറയാന് പറ്റത്തില്ലല്ലോ നമ്മൾക്ക് സ്വന്തമായിട്ട് അഭിപ്രായം

ആ ഓക്കെ കുഴപ്പമില്ല നോക്കട്ടെ ഞാനേ കുട്ടിയോട് ഒന്ന് സംസാരിക്കട്ടെ കുട്ടി വന്നതിനു ശേഷം കുട്ടി എക്സാം എഴുതാമോ എങ്ങനെ അവ അത് സാധിക്കുമോയെന്ന് ഒന്ന് ചോദിച്ചു നോക്കട്ടെ കുട്ടിയോടുകൂടി എങ്കിലും കുഴപ്പം ഇല്ല ആ നല്ല രീതിയിൽ തന്നെ ടൂറിനു പോകുമ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിപ്പിക്കാന് നോക്കണം കാരണം ടൂറിനു പോയിക്കഴിഞ്ഞാൽ പിള്ളാർ കളിച്ചും ചിരിച്ചും അങ്ങ് നടക്കത്തില്ലേ പിന്നെ അവരുടെ എക്സാം എഴുതാന് ഒന്നും ഓർക്കും ഓര്മ്മയിൽ നിൽക്കത്തില്ല അവർ ടൂറിന്റെ പരിപാടിയായിരിക്കും തലയിൽ നിൽക്കുന്നത് കൂടുതലുമേ അതുകൊണ്ട് ഓക്കെ എന്നാ ഞാനേ കുഴപ്പം ഇല്ല കുട്ടിയെ കൊണ്ടുപൊയ്ക്കോളൂ അത് കുഴപ്പം ഇല്ല കുട്ടിയെ നല്ല രീതിയിൽ തന്നെ പഠിപ്പിക്കണം നല്ല രീതിയില് പരീക്ഷ എഴുതുന്ന നന്നായിട്ട് പഠിക്കുന്ന കൊച്ചാണ് അതുകൊണ്ട് അവനെ നല്ല രീതിയിൽ തന്നെ നോക്കാന് ശ്രമിക്കണം കൂടുതലും കേട്ടോ കളിച്ചു ചിരിച്ച് ഓക്കെ ഓക്കെ ഓക്കെ താങ്ക് യു